ഞാൻ നേരത്തെ ഒരു ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കെ എഫ് സി രണ്ട് ബക്കറ്റ് കെ എഫ് സി ചിക്കനും രണ്ട് പെപ്സി പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇത്ര ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പൈസ അടച്ചിട്ടും ഉണ്ടായിരുന്നു അറേബ്യൻ ഡിലൈറ്റ്സ് ഹോട്ടലിൽ നിന്നായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ ആ ഓഡറ് ഞാൻ കാൻസൽ ചെയ്തു റദ്ദാക്കിയിട്ടുണ്ട് അപ്പോൾ ആപ്പിൻ്റെ വാലറ്റിലേക്ക് ഞാൻ റദ്ദാക്കിയ ഓഡറിൻ്റെ റീഫണ്ട് ഞാൻ ആവശ്യപ്പെടുവാണ് കാരണം എനിക്കിപ്പോൾ ആ ഓഡറ് വേണ്ട ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് കുറച്ച് കൂട്ടുകാരുമായിട്ട് കൂടുമ്പോഴത്തേക്കും ഇത് ചെയ്യാം എന്നാണ് വിചാരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ അവർ വരാത്തത് കൊണ്ട് നമുക്ക് അത് ഓഡറ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ഓഡറ് കാൻസല് റദ്ദാക്കിയിട്ടുണ്ട് കാൻസല് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ ആ ആപ്പിൻ്റെ വാലറ്റിലേക്ക് ഞാൻ റദ്ദാക്കിയിട്ടുള്ള ഓഡറിൻ്റെ റീഫണ്ട് വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഞാൻ ഉപയോഗിച്ച ആപ്പിൻ്റെ പേര് ഗൂഗിൾ പേ ആണ് അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ക്യാഷ് പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആകും എന്ന് വിശ്വസിക്കുന്നു എനിക്ക് സ്വിഗ്ഗിയെ പറ്റി അങ്ങനെ മോശം അഭിപ്രായങ്ങളൊന്നും ഇല്ല കാരണം നല്ല ഒരു ആപ്പ് ആണ് ഞാൻ കേട്ടതിൽ വെച്ച് നമ്മൾ റീഫണ്ട് ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ റീഫണ്ട് കയറിക്കോളും പിന്നെ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കൂടുതൽ പൈസ ചെലവാക്കാൻ ഇതിവിടെ കൂട്ടുകാർ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ചെലവാക്കിയാലും ഫ്രണ്ട്സുമായിട്ട് നമുക്ക് അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അവരിപ്പോൾ അവർക്ക് വരാനൊരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് റദ്ദാക്കാനുള്ള കാരണം ഈ ഓഡറ് റദ്ദാക്കാനുള്ള കാരണം അപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു ബുക്കിങ് താമസിയാതെ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം ഇതിപ്പോൾ ഇന്ന് പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ ഇത് ഉപയോഗിക്കുന്നത് അല്ല ഈ സ്വിഗ്ഗി നിർത്തുന്നില്ലല്ലോ നമുക്ക് ആവശ്യം അല്ലേ സ്വിഗ്ഗിയൊക്കെ അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിലും ഞാൻ സ്വിഗ്ഗി ഉപയോഗിക്കുന്നുണ്ട് എന്തിരുന്നാലും എനിക്ക് ആയിരത്തി ചില്ലാനം രൂപ അക്കൗണ്ടിൽ കയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു